ഞങ്ങളുടെ റോഡുകളൊക്കെ ഭയങ്കര മോശമാണ് പിന്നെ മഴയൊക്കെ പെയ്താല് ഒക്കെ കുണ്ടും കുഴിയായിട്ട് വെള്ളം നിറഞ്ഞ് അപകം അപകടങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഓ യാത്ര ചെയ്യുവാന് ബസ് ഇപ്പോൾ മിനിമം ചാർജ്ജ് കുറവാണ് പത്ത് രു പത്ത് റുപ്പിയെ ഉള്ളു പിന്നെ ഓട്ടോറിഷാ പോയി മഴയൊക്കെ പെയ്തു കുണ്ടും കുഴിയും ഒക്കെ ആയി വരുമ്പോൾ ഓട്ടോറിഷയ്ക്ക് കുറച്ച് ചാർജ്ജ് ചിലപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോളൊക്കെ കുറച്ച് കൂടുതല് വാങ്ങും പിന്നെ ട്രെയിനിനും നമ്മൾ ഇപ്പോൾ ഒരു വഴിക്കൊക്കെ പോകുമ്പോൾ പൈസ കുറവാണ് ട്രെയിനില് പോകുന്നതും നല്ല ഇതാണ് പിന്നേ ഈ മാ ഈ റോഡ് ഭയങ്കര മോശമായിട്ടാണ് ഇപ്പോൾ കേരളത്തില് ഉള്ളത് ഫണ്ട് ഒക്കെ കിട്ടിയാലും അവര് വന്ന് ശെരിയാക്കാതെ കുറച്ചൊക്കെ പാച്ച് വർക്കൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ശെരിയാക്കി വരുമ്പോളേക്കും മഴയൊക്കെ പെയ്യുമ്പോൾ ഒരു ഭാഗത്ത് കുണ്ടും കുഴിയും ഒരു ഭാഗത്ത് കുണ്ടും ദാ ഒലിച്ച് പോകും അങ്ങനത്തെ ഒക്കെ അവസ്ഥയാണ് കേരളത്തിൽ ഉള്ളത്